ഇപ്പോൾ നമ്മുടെ ലോകം എന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ നല്ലരീതിയിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നൊരു ഒരു ലോകമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ എല്ലാം എ ഐൻ്റെ കാലമാണ് എ ഐ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷൽ ഇന്റലിജൻസിൻ്റെ കാലമാണ് കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആൾക്കാർക്ക് അതായത് പൊതുവെ പണി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൽ നമ്മളെന്താണോ നമ്മൾ ആക്കേണ്ടത് അതെല്ലാം കമ്പ്യൂട്ടർ യുഗമായിട്ട് മാറികൊണ്ടിരിക്കാണ് അപ്പം നമ്മൾ ഭൂമിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ലരീതിയിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാം ടെക്നോളജിയാണ് നമുക്ക് മൊബൈൽ കാര്യങ്ങളൊക്കെ വന്നു പണ്ടെന്ന് പറഞ്ഞാൽ മൊബൈൽ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ അത് കോൾ ചെയ്യാൻവേണ്ടി മാത്രം അതായത് ഒരു കോളും ഒരു മെസ്സേജും അയക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഉപകരണം മാത്രായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ എന്തു സാധനമാണെങ്കിലും നമ്മൾ അതിനകത്തെ മൊബൈലിലൂടെ ആണ് എല്ലാം അറിയുന്നതും മൊബൈലിലൂടെ ആണ് നമ്മൾ എല്ലാം കേൾക്കുന്നതും അപ്പം മൊബൈൽ തന്നെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ലരീതിയിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമായിട്ടാണ് നമ്മൾ മാറുന്നത് അപ്പോൾ നമ്മുടെ കാഴ്ച്ചപ്പാടും നമ്മളെ രീതികളും നമ്മുടെ കൾച്ചറിൽ നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാ എല്ലാ രീതിയിലും നമ്മൾ നല്ലരീതിയിൽ മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം